എൻറെ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ മകനാണ് അവൻ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അവനും വരയ്ക്കാൻ ശ്രമിക്കാറുമുണ്ട് അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരായാലും ഞാൻ വരച്ച ചിത്രങ്ങൾ കാണുമ്പോൾ അവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് എൻ്റെ മകൻ പല ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നോട് അതുപോലെ അമ്മ വരച്ച് തരുമോന്നൊക്കെ ചോദിക്കാറുമുണ്ട് ഞാൻ വരച്ചു കൊടുക്കാൻ പറ്റുന്നത് ആണെങ്കിൽ വരച്ചു കൊടുക്കാറുണ്ട് എനിക്കും വെറുതേ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ചിത്രം വരയ്ക്കാൻ വേണ്ടിട്ട് വളരെ ഇഷ്ടമാണ് അത് കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിത്രങ്ങളെന്നു പറയുന്നത് രവി വർമ്മൻ്റെയും അതുപോലെ പിക്കാസോൻ്റെ ഒക്കെ ചിത്രങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ വരയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് അവരുടെ ചിത്രങ്ങളൊക്കെ ശരിക്ക് ജീവനുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാണുമ്പോൾ അതുപോലെ പ്രകൃതിയെക്കുറിച്ച് പുഴകൾ മലകൾ പഴയ വീടുകൾ അങ്ങനെയുള്ള തരത്തിൽ വരുന്ന പെൻസിൽ ഡ്രോയിങ്ങുകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അത് അങ്ങനെയുള്ള ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് വരയ്ക്കാറുമുണ്ട്